ഹലോ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണോ ആ ആ ആ മാഡം എനിക്ക് എൻ്റെ മകനെ സ്കൂളിൽ ചേർക്കണമായിരുന്നു അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ആണെന്നു പറയാമോ ഡൊണേഷനൊക്കെ ഉണ്ടോ ആ ഡൊണേഷൻ എത്രയാണ് അതും ഇപ്പോൾ തന്നെ അടക്കണോ ഡൊണേഷൻ എങ്ങനെ ആണെന്ന് പറഞ്ഞാൽ ആ ഫീസും കാര്യങ്ങൾ ആണോ ഓക്കെ ഓക്കെ മാഡം ഇത് സ്കൂളിൽ യൂണിഫോം ഒക്കെ സ്കൂളിൽ അവൈലബിൾ ആണോ

ആണോ ആ അപ്പോൾ എല്ലാ യൂണിഫോമും അവിടെ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ ആ അത് അത് കുഴപ്പമില്ല മാഡം പിന്നെ എങ്ങനെയാണ് ഫുഡൊക്കെ എങ്ങനെയാണ് മാഡം ആ ആ ആ ആ ഓക്കെ ആ ഓക്കെ മാഡം വാൻ ഫീസ് വാൻ അവൈലബിൾ ആണോ ആണോ വാൻ വാൻ ഫീസൊക്കെ എങ്ങനെയാണ് ആണോ ആ ആ ഓക്കെ മാഡം മാഡം എത്ര ഏതു ദിവസമാണുള്ളത് വെള്ളിയാഴ്ച വരെ ആണോ ശനിയാഴ്ച വരെ ആണോ ഓപ്പണിങ് ഉള്ളത് ആ ഓക്കെ മാഡം ശരി എന്നാൽ